ഹലോ സ്വിഗ്ഗി അല്ലെ ഞാൻ ഏഴു മണിക്ക് ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു നാല് ബർഗർ ഓർഡർ നമ്പർ വന്ന് സി മുന്നൂറ്റി ഇരുവത്തെട്ട് അത് ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നോ അത് ഡെലിവർ ചെയ്തിട്ടുണ്ടോ അതോ അത് ആ ഓർഡറ് എക്സ്പയർ ആയി പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് പിന്നെ ഇപ്പം ഇത്രയും നേരം ആയില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കുട്ടികളൊക്കെ വിശന്ന് ഇരിക്കുകയായിരുന്നു പിന്നാം ആ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം അറിയാൻ സാധിക്കുമോ അത് കൊടുത്ത് അയച്ചിട്ടുണ്ടോ എപ്പോൾ എത്തും അത് അത് കിട്ടാനുള്ള സാധ്യത ഇല്ലേ എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അത് ഒരിക്കൽ കൂടെ ഓർഡർ കൊടുക്കാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിളിച്ചത് എന്തായിരുന്നാലും അതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചതിന് ശേഷം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ കോളിൽ വെയിറ്റ് ചെയ്യട്ടെ അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് എന്നോട് എന്താണെന്നു വച്ചാൽ റിപ്ലൈ അറിയിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്തായിരുന്നാലും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഒക്കെ